ആ ടീച്ചറേ സുഖമായിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പം ഉണ്ടല്ലോ പുതിയ ഈ സിലബസ് ഒക്കെ മാറി പിന്നെ ഇപ്പം മൊത്തം ഹൈബ്രിഡ് ക്ലാസസ് ഒക്കെ വന്നതിൽ പിന്നെ ഭയങ്കര പാടാണ് ക്ലാസ് എടുക്കാനൊക്കെ ട്യൂഷൻ ഒക്കെ ട്യൂഷൻ ഒക്കെ ഓണ് ഓണ്ലൈൻ ആയിട്ട് പിള്ളേർ ഒക്കെയുണ്ട് പക്ഷേ എന്നാലും എനിക്ക് ഓണ്ലൈനിൽ മീറ്റ് കൂടി എടുക്കാനും പിന്നെ സ്ലൈഡ് ഒക്കെ ഷെയർ ചെയ്യാനും ഓണ്ലൈന് വഴി ബോർഡിൽ എഴുതാനൊക്കെ എനിക്ക് ഞാന് പഠിച്ചുവരുന്നതേ ഉള്ളൂ ഞാന് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും അതുമുഴുവന് തെറ്റിപ്പോവുവേം ചിലപ്പം ക്ലാസ് ഒക്കെ കുറേ സമയം അതിന് തന്നെ പോകും സ്കൂള് സ്കൂള് സ്കൂളിലൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇപ്പം സ്മാർട്ട് ക്ലാസ് സ്കീം ഒക്കെയല്ലേ

ഞാൻ പിന്നെ രാവിലെയും വൈകിട്ടുമായിട്ടാണ് ട്യൂഷൻ എടുക്കുന്നത് പക്ഷേ ചില പിള്ളേർ ഇപ്പം ഓണ്ലൈൻ ആയത് കാരണം പിള്ളേരുടെ സൗകര്യത്തിന് അവര്ക്ക് എപ്പോഴാണോ സൗകര്യം അത് വെച്ച് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓണ്ലൈൻ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ നെറ്റ് ചില പിള്ളേരുടെ ഒന്നും വീട്ടിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നെറ്റ് കണക്ഷന് കുഴപ്പം ഉള്ളതുകൊണ്ട് അങ്ങനൊനെയൊരു പ്രശ്നമുണ്ട് പിന്നെ സിലബസ് മാറിയപ്പോഴത്തേക്കും പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പരിചയം ഉള്ളതായത് തന്നെ കുറേ വര്ഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു ഇപ്പം സിലബസ് മാറിയപ്പോൾ നമ്മൾ ആദ്യം ഇരുന്ന് കുറേ പഠിക്കണം സിലബസിനെ പറ്റി മൊത്തം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറേയൊക്കെ അവർ എടുത്ത് കളഞ്ഞ് സിലബസിൽ നിന്ന് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ഓ ഓണത്തിന് പരീക്ഷ എപ്പോഴാണ് വരുന്നത് ഡേറ്റ് വല്ലതും അറിഞ്ഞോ

പത്താം ക്ലാസിൽ പഠി പത്താം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേര്ക്ക് വേണ്ടിയിട്ട് ഓണം അവധിക്ക് ഞാനൊരു സ്പെഷ്യല് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം സിലബസ് എക്സാമിന് മുന്നേ നേരത്തെ ട്യൂഷൻ എടുത്ത് തീര്ക്കുമായിരുന്നെങ്കിൽ പിള്ളേര്ക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് അവിടെ സ്പെഷ്യല് ക്ലാസ് ഉണ്ടോ എത്ര മണിക്ക് തുടങ്ങും പത്താം ക്ലാസുകാര്ക്ക് ഓ ഓ ഓക്കെ ഓക്കെ ആ എന്നാൽ ആ എന്നാൽ കുഴപ്പമില്ല എനിക്ക് സിലബസ് കുറച്ച് എനിക്ക് പുതിയ നോട്ട്സിന്റെ കുറച്ച് ബുക്ക് ഒക്കെ വേണമായിരുന്നേ എൻ എൻറെ കയ്യിൽ ഉണ്ടായിരുന്ന സിലബസ് മാറിയതുകൊണ്ടേ മിസ്സിന്റെ ആ പുതിയ സിലബസിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എനിക്കൊന്ന് തരണേ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുഴപ്പം ഇല്ലല്ലോ ആ ഓക്കെ ശരി ശരി